ഹലോ ഹലോ ആരായിരുന്നു ഇത് ആ അതേല്ലോ അതെ ആ ആ പുറത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങാൻ വേണ്ടീട്ടല്ലേ പത്തനംത്തിട്ട ജില്ലയിൽ ആ ഓർമ്മയുണ്ടോർമ്മയുണ്ട് ഇപ്പം എന്തായിരുന്നു

ഓ ആ വീടും സ്ഥലവും കൂടെ കൂടിയിരിക്കുന്ന സ്ഥലം വേണവല്ലേ

ആ ഇതിപ്പം നം ഞാൻ പറയാണെങ്കിൽ മേടം ഇവിടെ മൂന്ന് സ്ഥലങ്ങൾ മേഡത്തിന്റെ പ്രിഫറെൻസ് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കീട്ടുണ്ട് ഒന്ന് ആറന്മുള അമ്പലത്തിന്റെ സൈഡിലായിട്ട് വരും ഒരു പ്ലോട്ട് അവിടെ വീടും എന്നാ സ്ഥലവും കൂടെയുണ്ട് അപ്പം ഏകദേശം സെൻറ്റിനൊരു രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് വരുന്നത് പ്ലസ് വീടിൻന്റേം കൂടെ വരും ആ നല്ല രണ്ട് നില വീടാണ് എല്ലാം ഇത് ഫെസിലിറ്റി പണിതിട്ട വീടാണ് എല്ലാ ആവശ്യങ്ങൾക്കുള്ള സംഭവങ്ങളുവൊണ്ട് മൊത്തത്തിലൊരു എട്ട് സെൻറ്റ് സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലം കാണും വീടിൻറ്റേങ്കൂടെ വരുമ്പോഴ്ത്തേക്ക് ഒരു അൻപത് ആറുപത് ലക്ഷത്തിനുള്ള ഉള്ള ഇതുണ്ട് ആ പിന്നെ അവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് വെള്ളം കുറച്ച് കുറവാണ് ആ വെള്ളം എന്നുപറഞ്ഞാൽ വെള്ളം കിട്ടും നമുക്ക് പക്ഷേ വേനൽക്കാലം വരുമ്പം കുറച്ച് പാടാണ് കിട്ടാൻ അതാണ് ഒരു പ്രശ്നം ആ പിന്നെ വെള്ളം കയറുന്ന ഒരു പ്രദേശമല്ല കേട്ടോ അതും അതൊരു ഇതാണ് വേറെ തിരുവല്ല ഭാഗത്ത് ഒരു വീടുണ്ട് അതും ഈ പറഞ്ഞ പോലെ വീടും സ്ഥലവും കൂടെയാണ് ഒരു പന്ത്രണ്ട് സെൻറ്റ് വരും വീട് കുറച്ചൂടെ കുറച്ചൂടെ ഒരു മോഡർണായിട്ടുള്ള വീടാണ് കുറച്ച് ആ സംഭവങ്ങളൊക്കെ കൂടുതലുള്ള വീടാണ് കിണറുണ്ട് അതേപോലെ വെള്ളം നല്ല രീതീൽ കിട്ടുന്നുണ്ട് വെള്ളം കയറത്തില്ല ആ പ്രദേശത്ത് പിന്നെ കുഴപ്പമില്ല റോഡിന്റെ അറ്റത്തക്കെയാണ് വീട് മേ മേടം ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞ ആ ഒരു പ്രിഫറൻസ്സ് വെച്ചിട്ട് അത് ഓക്കെയാണ് പിന്നെ ആ ആ സ്കൂളും ഹോസ്പിറ്റലും കോളേജുവൊക്കെ കോളെജൊക്കെ അവിടടുത്തടുത്തൊണ്ട് അതുകൊണ്ടവിടം കുഴപ്പമില്ല പിന്നെ പരിസരപ്രദേശത്തൊക്കെ അനക്കമൊക്കെ ഉള്ളതാണ് പിന്നെ റോഡുമായിട്ടും അടുത്താണ് പിന്നെ വേറെന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിഫറൻസുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് സ്ഥലം നോക്കാമായിരുന്നു എന്തോ ഈ പറഞ്ഞ തിരുവല്ലേലുള്ളതോ തിരുവല്ലയിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരൂ സെൻറ്റിന് അവർ നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ വേറൊരു സ്ഥലമുണ്ട് റാന്നിക്ക് പോകുന്ന വഴിക്കൊരു സ്ഥലമുണ്ട് അവിടെ സ്ഥലം മാത്രമേ ഉള്ളു വീടില്ല വീടില്ല വെള്ളം എല്ലാം ഉണ്ട് എന്തോ അത് മൊത്തത്തിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് വീട് പക്ഷേ ഇല്ല അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ ഇതൊരു മെ ഒരു മുകളിലായിട്ടാണ് വീടിരിക്കുന്നത് അവിടിതുവരെ വെള്ളം കയറിയതായിട്ടറിയേല അവിടെ വെള്ളം കയറത്തില്ലെന്നാണ് പറഞ്ഞത് ആ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളു അത് സെൻറ്റിന് വരുമ്പോഴ്ത്തേക്കും മൂന്നര ലക്ഷം രൂപ വരും

ആ ഓക്കേ മേടം എന്താന്നുവെച്ചാൽ നമുക്ക് ചെയ്യാം ഓക്കേ ശരി താങ്ക് യൂ